ആ എനി ഞാൻ വായനാട്ടിൽ നിന്ന് വിളിക്കുവാണേ അപ്പോൾ എനിക്കൊരു മൊബൈൽ വാങ്ങാനായിരുന്നു പ്രൈസ് കുഴപ്പമില്ല ഇപ്പോഴത്തെ മോഡൽ ഏതാണെങ്കിലും കുഴപ്പമില്ല ആ സാംസങ് നോക്കാം എന്നാൽ ഓക്കേ അപ്പം നിങ്ങളുടെ ഷോപ്പ് എവിടെ ആയിരുന്നു ആണല്ലേ ആ അപ്പം തിങ്കളാഴ്ച വന്നാൽ വാങ്ങാൻ സാധിക്കുമോ ആ ആ റെഡി ക്യാഷ് ആണ് ചെക്ക് ഓക്കേ എന്നാൽ കയ്യിൽ ക്യാഷ് കൊണ്ടുവരാം ആ ഓക്കേ പിന്നെ കളർ തീം കളർ ഒക്കെ ഒന്ന് പറഞ്ഞ് തരുവോ ഇപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ

ആ ആ അപ്പോൾ വേറെ ഏതാണ് ഉള്ളത് അതേയുള്ളോ ഓക്കെ എന്നാൽ ബ്ലാക്ക് സെലക്റ്റ് ചെയ്യാം ആ യെസ് യെസ് അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ കൊണ്ട് മാറ്റി മാറ്റാൻ വരും കേട്ടോ ആ ഓക്കേ ഓക്കേ അപ്പോൾ എന്നാൽ നമുക്ക് കടയിൽ വെച്ച് കാണാം എന്നാൽ ആ ഓക്കെ എന്നാൽ ശരി